ആ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട്

ഞാൻ കുറെ നേരം അവിടെ വൈറ്റ് ചെയ്തു ഡ്രൈവർ ഇതുവരെ വണ്ടീം കൊണ്ട് വന്നിട്ടില്ല എന്തു കൊണ്ടാന്നെന്നും എനിക്കറിയില്ല പക്ഷേ ഞാനെത്ര നേരം അവിടെ വെച്ച് വൈറ്റ് ചെയ്യുക ഒരു വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാമാന്യ ബോധം എന്തായാലും ഉണ്ടാവണം കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ഒരാൾ അവിടെ അത്രേം നേരം അവിടെ കാത്തുനിൽക്കുന്നതൊക്കെ അവരുടെ സമയത്തിനും വിലയുണ്ട് ഞങ്ങടെ സമയത്തിനും വിലയുണ്ട് ഞാനെത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നെയാണ് ഇതുവരെ അവർ വന്നിട്ടില്ല അപ്പോൾ ഞാനെന്തെയ്ത് അവിടെന്ന് മാറി മാനന്തവാടി ടൗണിലേക്ക് വന്നു ഇനി ഏതെങ്കിലും വണ്ടി വിളിച്ചിട്ട് പോകൻ വേണ്ടീട്ട് പക്ഷേ എനിക്ക് വിളിക്കുന്നനത്തിന് മുന്നേ നിങ്ങളെ ഒന്ന് പറയണംന്ന് ഉണ്ടായിരുന്നു അല്ല അത് പറഞ്ഞതിൽ അങ്ങനെ പറയരുത് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ഒരു വാക്ക് പറയാലോ ഞാനിങ്ങനെ വൈകും വണ്ടിക്ക് പാ നട്ടിലും ബോൾട്ടിലും ഓടുന്ന പല സാധനങ്ങളാണ് അപ്പോൾ അതിനെന്തെങ്കിലും കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വിളിച്ച് പറയാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടല്ലോ ഡ്രൈവറെ വിളിച്ചു ഡ്രൈവറെ വിളിച്ചിട്ട് എടുക്കണില്ല അല്ല എടുത്തു കഴിഞ്ഞിട്ടൊന്ന് കാര്യം പറയാലോ എന്താ കാരണം എങ്ങനെയാണ് എന്നൊക്കെ പറയാലോ നിങ്ങൾക്ക് എത്ര നേരം ഒരു മനുഷ്യനെ അവിടെ നിർത്തുക ഇല്ല ഞാൻ ഇനിയെന്തായാലും എനിക്ക് ക്യാബ് വേണ്ട കാരണം വേറെ വണ്ടി ഏയ് വേണ്ട വേണ്ട വേറെ വണ്ടി ഒന്നും വിടണ്ട ഞാനെന്തായാലും ക്യാബ് ഞാൻ റദ്ദാക്കാണ് ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അവിടെ ഇല്ല ഞാൻ ആ ചെറ്റപ്പാലത്തീന്നു എന്തായാലും പോന്നു അല്ല വേണ്ട മാനന്തവാടിക്കാണെങ്കിലും ഇനിയിപ്പോൾ എവിടെ ആണെങ്കിലും എനിക്കിപ്പോൾ ഇവിടെന്നൊരു വണ്ടി വിളിച്ച് അല്ലേ ഓട്ടോ വിളിച്ച് പോയാലും എനിക്ക് ഏ നിങ്ങടത്രേം പൈസേം ആവുല്ല അത്രേം എന്താ പെട്ടന്നെനിക്ക് എത്തും ചെയ്യാം നിങ്ങളിനിയിപ്പോൾ അവിടെന്നിവിടം വരെ വരുന്ന സമയം എനിക്ക് ലേറ്റാണ് ആ അതെ അതെ അതെന്തായാലും ഇനി വേണ്ട ഇനി എന്തായാലും വണ്ടി ഞാനിതാ റദ്ദാക്കുവാണ് എനിക്കിനി വേണ്ട ഞാൻ ഇവിടെന്ന് വല്ല ഓട്ടോർഷേം വിളിച്ച് പോയാലും എനിക്കതിന്റെ പ്രശ്നം ഇല്ലായിരുന്നു ക്യാ ഇപ്പം ഈ ക്യാബ് ബുക്ക് ചെയ്ത് പെട്ടന്ന് വരുമല്ലോ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കറക്ട് വരൂല്ലോ എനിക്ക് സുഖമായിട്ട് പോകാല്ലോ എന്നോർത്താണ് ഞാൻ നിങ്ങളുടെ ബുക്ക് ചെയ്തത് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഇമ്മാതിരി ചെറ്റത്തരം കാണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇനിയെന്തായാലും വേണ്ട ഞാനെന്തായാലും ക്യാബ് ക്യാൻസൽ ചെയ്തു ഓക്കെ ഓക്കെ എന്നാൽ ശരി എന്നാൽ